തീർച്ചയായും വൈദ്യുതിയുടെ അപകടങ്ങളെ കുറിച്ചു ഞാൻ ബോധവാനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതി സാധാരണ പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും ഒന്ന് നമുക്ക് വീടിനടുത്ത് അകത്തുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ട് വീടോ ബിസിനസ് സ്ഥാപനങ്ങളോ നമ്മുടെ ഓഫീസോ ഇങ്ങനെയുള്ള അങ്ങനെയുള്ളത് തന്നെ നമുക്ക് അകത്തുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തിന് പുറത്തായിരിക്കുന്ന പുറത്തുണ്ടാവുന്ന അപകടങ്ങളുമുണ്ട് ഒരു ഓപ്പൺ പ്ലേസിൽ ഉണ്ടാവുന്ന അപകടങ്ങളുണ്ട് വീടിന് അകത്തുണ്ടാകുന്ന അപകടങ്ങൾ എന്നു പറയുമ്പം നമ്മൾക്ക് എന്നാ പറയാ നമ്മൾ മെയിന് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വയറിങ് വസ്തുക്കളുടെ എന്നു പറഞ്ഞാൽ ക്വാളിറ്റി മോശം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലെ സ്വിച്ച് ബോർഡുകളോ അയൺ ബോക്സ് വൈദ്യതി ഉപകരണങ്ങളെല്ലാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് അതിൽ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അതിന് കംപ്ലൈയിൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു അയൺ ബോക്സ് ആണെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് വരിക അല്ലെങ്കിൽ നനഞ്ഞ കൈ കാൽപാദത്തിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നനവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അയൻ അയന് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ തുണി തേക്കാൻ പോകുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ സ്വിച്ചുകളിലൊക്കെ തൊടുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ എന്തെങ്കിലും വൈദ്യുതി ഉപകരണങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടും ആ പ്രശ്നം പരിഹരിക്കാതെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വച്ചിട്ട് അങ്ങനെ വരുന്ന കേസുകൾ നമുക്ക് അപടങ്ങൾ ധാരാളം സംഭവിക്കാറുണ്ട് പിന്നെ മിക്കവരും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണെന്ന് തന്നെ പറയാം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂസ് ഏറ്റവും കുറഞ്ഞ ലൈൻ ഉണ്ട് കൊടുക്കേണ്ടെന്നു പകരമായിട്ട് ലൈൻ അല്ല ഏറ്റവും കുറഞ്ഞ ഒരു കേബിള് വയറ് വച്ചു കൊടുക്കേണ്ട വയറിൻ്റെ അകത്തൊരു ചെറിയ ഇത് കൊടുക്കണ്ടതിന് പകരമായിട്ട് ചിലർ അത് പോകാതിരിക്കാൻ വേണ്ടി ഫ്യൂസ് കത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കനം കൂടിയ വയറ് ഉപയോഗിച്ചു ഒരുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വൈദ്യുതി ഉപകരണങ്ങളിലും വീടുകളിലൊക്കെ അപകടമുണ്ടാകും അതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ വീടിന് വെളിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകൾകൊക്കെ വെളിയിലാണെങ്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി കിടക്കുന്ന ഇടത്ത് വൈദുതി ലൈനൊക്കെ പൊട്ടി കിടക്കുകയാണെങ്കിൽ അത് അറിയാതെ നമ്മൾ അപകടം ഉണ്ട് അപ്പം അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാനായിട്ട് നാം ആരുമായിക്കോട്ടെ ഇത്തരം വൈദ്യുത ലൈനുകളോ ട്രാൻസ്ഫോമറുകളോ വൈദുത ഉപകരണങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അടിയന്തര നമ്പറുകൾ വിളിച്ചു അടിയന്തരമായിട്ട് അത് വിശദീകരിച്ചു അല്ലെങ്കിൽ കെ എസ് ഇ ബി ഓഫീസുകൾ വിളിച്ചു അത് പറയുകയാണെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പവറ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഒത്തിരി പേർക്ക് എല്ലാവർക്കും അപകടം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റകത്ത് പ്രധാനപ്പെട്ട കാര്യം ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മാത്രം കാര്യമല്ല കാര്യം നമ്മുടെ നമ്മുടെ കാര്യം മാത്രം നോക്കി ഇരുന്നാൽ ബാക്കിയുള്ളവർ അത് അപകടത്തിലേക്ക് വിടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ലത് ഐ എസ് ഐ മാർക്ക് ഉള്ള നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യുത അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും വൈദ്യുത ആഘാതമേറ്റിരിക്കുന്ന ആളെ പെട്ടെന്ന് പിടിച്ചു മാറ്റാൻ പോകാതെ അത് പിടിച്ചു മാറ്റാൻ പോകാതിരിക്കുക എന്നു പറഞ്ഞാൽ നനഞ്ഞ വിറകോ ഇരുമ്പ് സാധനങ്ങളോ ഒന്നും കൊണ്ട് മാറ്റാതെ ഉണങ്ങിയ വടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാറ്റുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനു ശേഷം ഉടൻ തന്നെ അയാൾക്ക് പ്രഥമ ശുശ്രുഷ നൽകുകയും ഏറ്റവും അടുത്തുള്ള നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ എത്തിക്കുക അങ്ങനെ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ സഹായിക്കും എപ്പോഴും വൈദ്യുതിക്ക് നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല വൈദ്യുതി എപ്പോഴും നമ്മുടെ ദൈനംജിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒരു കാരണവശാലും അതിനെ പേടിക്കേണ്ടതില്ല പക്ഷെ നമ്മൾ അത് സുരക്ഷ മുൻകരുതൽ എടുക്കാൻ ആവശ്യമായ സുരക്ഷ പാലിക്കാൻ സുരക്ഷ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്